ഹലോ ഹലോ നമസ്കാരം ഇത് പവിത്ര ഹോട്ടലല്ലേ ഞാൻ തലശ്ശേരി പിലാക്കൂൾന്നാണേ വിളിക്കുന്നത് ഞാൻ സ്വിഗ്ഗി വഴി നേരത്തെ കുറച്ച് മുൻപേ രണ്ട് ചിക്കൻ ബിരിയാണിയും നാലു സാധാ ഊണും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് മണിക്കൂറിലധികം എടുത്തു നിങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല നിങ്ങളുടെ ഡെലിവറി വളരെ മോശമാണ് പേക്കിങ് ഒക്കെ വളരെ മോശമാണ് ഡെലിവറി സർവ്വീസിനോടും ഞാൻ ഒട്ടും തൃപ്തനല്ല ഭക്ഷണം ഇവിടെ കൊണ്ടു വരുന്ന വരുമ്പോഴേക്കും കറിയൊക്കെ പുറത്ത് പോയിരുന്നു ഭയങ്കര മോശമായിരുന്നു പാക്കേജിങ് ഒക്കെ തീരെ ചൂടുമില്ല ഭക്ഷണത്തിന് എന്താ നിങ്ങൾ ഇത്രയും മോശമായ രീതിയിൽ ഡെലിവറി ചെയ്യുന്നത് സമയം പോയത് സാരമില്ല എന്നാലും പേക്കേജിങ് വളരെ മോശം അതെങ്കിലും നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു അത് മാത്രമല്ല ബിരിയാണിയൊക്കെ പഴകിയ പോലെ ഉണ്ട് ഭക്ഷണം ഭയങ്കര പഴക്കുള്ള പോലെ ഉണ്ട് ഒട്ടും ചൂടില്ല ഇന്നലെയെങ്ങാനും ഉണ്ടാക്കിയ പോലെ ഉണ്ട് അങ്ങനത്തെ ഒരു ഫീലാണുള്ളത് തണുത്തിട്ട് ഇന്നലെ ഉണ്ടാക്കിയ പോലത്തെ ഫുഡ്ഡാണ് കിട്ടിയത് നിങ്ങളങ്ങനത്തെ ഫുഡ്ഡാണല്ലോ കൊടുത്തു വിട്ടത് ഞാൻ മൊത്തം അഞ്ഞൂറ്റി മുപ്പത് രൂപ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നു ഇവിടെ എൻ്റെ വീടു വരെ ഏകദേശം ആകെ രണ്ട് കിലോ മീറ്റർ ദൂരം അങ്ങനെ അങ്ങനെ മാത്രമേ ഉള്ളൂ അത്രയും ദൂരം കുറച്ച് ദൂരം ഉണ്ടായിട്ടും നിങ്ങൾ ഡെലിവറി ചാർജ്ജെന്നു പറഞ്ഞിട്ട് അൻപതു രൂപയാണ് വാങ്ങിച്ചത് അതെല്ലാം കൂടിയിട്ടാണ് ഈ അഞ്ഞൂറ്റി മുപ്പത് രൂപ വന്നിട്ടുള്ളത് അൻപത് രൂപ നിങ്ങൾ ഡെലിവറി ചാർജ്ജ് എന്നു പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ്ഡും അതുപോലെ തന്നെ പേക്കേജിങ് വളരെ മോശമായിട്ടുള്ള പേക്കേജിങ്ങും അതേപോലെ തന്നെ ഡെലിവറി സർവ്വീസും ഇത്ര മോശമായിട്ടുള്ള ഉണ്ടായിട്ടും ഇവിടെ വന്നിട്ട് നമ്മളുടെ ഗസ്റ്റൊന്നും ഭക്ഷണം കഴിക്കാണ്ടാണ് പോയത് ഇനി നിങ്ങൾ പേക്കേജിങ്ങും ഡെലിവറി ടൈമും ഒക്കെ ഒന്ന് ക്വാളിറ്റി ഫുഡ്ഡൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാലും ഞാൻ നിങ്ങളുടെ സർവ്വീസിനും ഭക്ഷണത്തിനും ഒട്ടും തൃപ്തനല്ല മുഴുവൻ ഫുഡ്ഡും കൊണ്ടുപോയി കളയേണ്ടി വന്നു നമ്മൾ ഓപ്പൺ ചെയ്ത എല്ലാ ഫുഡ്ഡും കൊണ്ടു പോയി കളയേണ്ടി വന്നു ഇതിനു ഞാനിപ്പം മറ്റു ആക്ഷനൊന്നും വേറൊന്നും എടുക്കുന്നില്ല പിന്നെ ഞാൻ അടച്ച പൈസ എനിക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ റിട്ടേൺ പോളിസി എങ്ങനെയാണു അതൊന്നു പറഞ്ഞു തരാൻ പറ്റുമോ ഇപ്പോൾ ഓപ്പൺ ചെയ്യാത്ത ഒരു ബിരിയാണിയും രണ്ട് മീൽസും ഇവിടെയുണ്ട് അതെനിക്ക് റിട്ടേൺ ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് എനിക്ക് റീഫണ്ട് ആയിട്ട് കിട്ടണം എന്നു ഒരു ആഗ്രഹമുണ്ട് കാരണം ഇത്രയും മോശായ പേക്കേജിനും അതുപോലെ തന്നെ ഇത്രയും മോശമായ ഫുഡ്ഡിനും ഞാനൊരു പൈസ അടക്കണ്ട കാര്യം ഇല്ലല്ലോ